ആളുകള് അവരുടെ സ്വന്തം സംസ്ഥാനത്തെ കുറിച്ചും അതിൻ്റെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചും കൂടുതലറിയണമെന്ന് ഞാൻ കരുതുന്നുണ്ട് നമ്മൾടെ സംസ്ഥാനത്തെ കുറിച്ച് ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നു പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്വന്തം സംസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞാൽ തന്നെ എല്ലാ ഭൂമി ശാസ്ത്രത്തെ കുറിച്ചും എല്ലാം അറിയാന്ന് അറിയാൻ പറ്റും സംസ്ഥാനത്തിനെ കുറിച്ചു അറിയുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്ര എന്തൊക്കെയാണ് നടക്കുന്നത് പിന്നെ എത്ര കുട്ടി എന്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടോ അങ്ങനേക്കാ അറിയാനൊക്കെ പറ്റും ഇപ്പോൾ തന്നെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലൂടെയാണെങ്കിൽ തന്നെ ടിവിയിലൂടെ ആണെങ്കിൽ തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞമ്മക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് അറിയുകേ ആ അറിയാനും പറ്റും ഇല്ലങ്കിൽ പിന്നേന്ന് പറഞ്ഞാൽ പഴയ സ കാലത്തെന്ന് പറഞ്ഞാല് നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാലെ നമുക്കറിയോളു എന്നാലും ഇപ്പം നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും ഇപ്പം തന്നെ ഗാസയില് ഒരുപാട് ആളുകള് മരിക്കുകയൊക്കെ ഉണ്ടായി അതൊക്കെ നമുക്ക് ഫോണിലൂടെയും ടീവീലൂടെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് അങ്ങനെ അങ്ങനെ വേണം എല്ലാ ആളുകളും ചെയ്യാന് ആളുകള് അവരുടെ സ്വന്തം സംസ്ഥാനത്തെ കുറിച്ചൊക്കെ അറിയണം എന്നു തന്നെയാണ് ഞാനും പറയുന്നത്